നഗരത്തിലെയും ഗ്രാമത്തിലെയും സ്കൂളുകൾ തമ്മിൽ ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട് നഗരത്തിലെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഒത്തിരി വലിയ സ്കൂളുകളായിരിക്കും അപ്പം തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒത്തിരി ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരിക്കും പക്ഷേ എന്നാൽ ഗ്രാമത്തിൽ എന്ന് വെച്ച് പറയുമ്പം ഗ്രാമത്തിൽ ഒത്തിരി കുട്ടികളൊന്നും ഒത്തിരി ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെയൊക്കെ പഠിക്കാൻ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും വളരെ മികച്ചവരായിട്ടായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് അവരുടെ അവരുടെ സ്വഭാവ രീതിയാണെങ്കിലും അവർ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും കുറേക്കൂടി എന്താണ് വ്യത്യസ്തമാണ് ഗ്രാമീണരീതിയിൽ വളരെ ഫലദായകമായിട്ട് അവരുടെ പഠനവും അവരുടെ ജോലികളും എല്ലാ കാര്യങ്ങളിലും ഒരു സ്വയം പര്യാപ്തത ഈ ഗ്രാമത്തിലെ കുട്ടികൾക്കുണ്ട് എന്നാൽ നഗരത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഒത്തിരിയധികം കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ശ്രദ്ധ അധ്യാപകർക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഒരേപോലെ വളരണമന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി നന്നായി പഠിക്കുകയും പിന്നോട്ടായി പോകുന്ന കുട്ടികൾ എല്ലാ കാര്യത്തിനും പിന്നോട്ടായി പോവുകയും പിന്നീട് അവരുടെ സൗഹൃദങ്ങൾ മറ്റ് പല വഴികളിലേക്കും പോവുകയും പിന്നീട് കൂട്ടുകെട്ടുകൾ മൂലം പല കുറ്റ കൃത്യങ്ങളിൽ അകപ്പെടുകയും കൂടുതലായിട്ട് ചെയ്യുന്നത് നഗരത്തിലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അവരുടെ സ്വഭാവ രീതിയും അവരുടെ പെരുമാറ്റ ശൈലികളും അവരുടെ ശീലങ്ങളുമൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് എന്നാൽ ഗ്രാമത്തിലെ കുട്ടികളെ അപേക്ഷിച്ച് അവർ അവരുടെ വീട്ടുജോലികളും ഒപ്പം പഠനവും കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവർ സ്വയം പര്യാപ്തരാണ് അവരുടെ കാര്യങ്ങൾ അവർക്ക് ഒത്തിരി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളൊക്കെ അവർ ഒത്തിരി നന്നായി ഉപയോഗിക്കുന്നവരായിരിക്കും പിന്നെ ഗ്രാമത്തിലെ സ്കൂളുകൾ പരസ്പരമുള്ള കോമ്പെറ്റീഷൻ പരസ്പരമുള്ള മത്സരം കുറവ് മത്സരബുദ്ധി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പല മത്സരങ്ങൾക്കും കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല പക്ഷേ അവരൊക്കെ എപ്പോഴും ഒത്തിരി കഴിവുള്ളവരും അവരുടെ തന്നെ സ്കൂളുകളിൽ വലിയ വലിയ രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നവരാണ് അതുപോലെത്തന്നെ എല്ലാ അവിടെയുള്ള അവിടെ അധ്യപകർ കുറവായിരിക്കും കാരണം ഗ്രാമത്തിലെ സ്കൂളുകളിൽ അധികം കുട്ടികളുണ്ടായിരിക്കില്ല അതുപോലെ അധ്യാകർ കുറവായിരിക്കും ഈ അധ്യാപകർക്കൊക്കെ എല്ലാ കുട്ടികളുമായിട്ടും വ്യക്തിപരമായ ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഗ്രാമത്തിലെ അദ്ധ്യാപകർക്ക് സാധിക്കുന്നുണ്ട് അതുപോലെത്തന്നെ കുട്ടികൾക്ക് അധ്യാപകരോട് ഒരു പ്രത്യേകമായ വാത്സല്ല്യവും സ്നേഹം ഒക്കെ അത് ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് അധ്യാപകരോടുള്ള മനോഭാവമല്ല നഗരത്തിലുള്ള കുട്ടികൾക്ക് അധ്യാപകരോടുള്ളത് അവർക്ക് കുറച്ചുംകൂടെ നഗരത്തിലെ കുട്ടികൾ പൈസ കൊടുത്ത് പഠിക്കുന്നതിൻ്റെ ഒരു അഹങ്കാരം അവരുടെ സ്വഭാവജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നാൽ അതുപോലെ എല്ലാ ഗ്രാമത്തിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അധ്യാപകരെ ഒത്തിരി സ്നേഹത്തോടെയും ബുഹുമാനത്തോടെയും ആദരവോടെയും സംസാരിക്കുന്നതും നമുക്ക് ശ്രദ്ധയിൽ പെടുത്താവുന്ന ഒരു കാര്യമാണ് അതുപോലെത്തന്നെ ഗ്രാമത്തിൽ താമസിക്കുന്ന കുട്ടികളുടെ കുട്ടികളുടെ സ്വഭാവം സ്വഭാവത്തിൻ്റെ സവിശേഷതകളൊക്കെ ഒത്തിരി ആകർഷകമാണ് എന്നാൽ നഗരത്തിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അൽപ്പം കൂടി എന്താണ് ദാർഷ്ട്യവും അതുപോലെത്തന്നെ ഒരു അധികാര മനോഭവം ഒക്കെയാണുള്ളത് കാരണം അവരുടെ സ്വന്തം ചിലവിലാണ് അവർ പഠിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നഗരത്തിലെ സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഉണ്ടാാവുന്നത് അതുപോലെത്തന്നെ ടീച്ചറ്മാർ അധ്യാപകർ കുട്ടികൾ പറയുന്നതനുസരിക്കേണ്ട ഒരു നിവൃത്തികേടുകൂടെ അത്തരം അത്തരം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഉണ്ടെന്നുള്ളതൊരു യാഥാർഥ്യമാണ് ഇപ്പോൾ തന്നെ നമ്മൾ പല പല പ്രാവശ്യങ്ങൾ അല്ലെങ്കിൽ പല വാർത്തകളിലായി കേട്ടു അദ്ധ്യാപിക അധ്യാപകർക്കെതിരെ സംസാരിക്കുന്നതുപോലെത്തന്നെ അദ്ധ്യാപകരെ അടിക്കുന്നതും അധ്യാപകരെ കൊലപ്പെടുത്താനുള്ള വധശ്രമവും ഒക്കെ നഗരത്തിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് എന്നാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗ്രാമത്തിൽ വളർന്ന കുട്ടികൾക്ക് ഗുരുത്തവും അതുപോലെത്തന്നെ അധ്യാപകരുടെ അനുഗ്രഹമാണ് അവരുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിക്കുന്നത് എന്നുള്ള ബോധ്യം ഒക്കെ ആഴപ്പെടുത്തി കൊണ്ടാണ് അത്തരം മാതാപിതാക്കൾ അവരെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾക്ക് കുറച്ചുംകൂടെ മൂല്യച്ചുതിയുള്ള ജീവിതമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നി തോന്നാറുള്ളത് അതുപോലെത്തന്നെ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ വസ്ത്ര ധാരണവും അതുപോലെത്തന്നെ അവരുടെ വൃത്തിയും നിത്യശുചിത്വവും ഒന്നും നഗരത്തിലുള്ള കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നഗരത്തിലെ കുട്ടികൾ കാണാൻ സുന്ദരന്മാരോ ഒത്തിരി ഒത്തിരി വസ്തുക്കൾ അവർക്ക് അന അവർ കൂടുതലായി ഉപയോഗിക്കുന്നവരാണ് അവരുടെ ഫാഷൻ സെൻസും അവരുടെ ട്രെൻഡിങ്ങും കാര്യങ്ങളും ഒന്നും ഗ്രാമീണ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല പക്ഷേ അവരുടെ സ്വഭാവ നഗരത്തിലെ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉന്നതപരമായ അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഗരത്തിലെ കുട്ടികൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റം എല്ലവരുടെതും ഒന്നും അടച്ചാക്ഷേപിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ഒത്തിരി കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചുവളരുന്നുണ്ട് ഒത്തിരി പ്രോത്സാഹനങ്ങളും ഒത്തിരി അവസരങ്ങളും ലഭിച്ച് ഒത്തിരിവിധ സമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒത്തിരി നഗരത്തിലെ കുട്ടികളുണ്ട് ഒത്തിരി കഴിവിലും ഒത്തിരി മത്സര അവിടെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് മത്സരങ്ങൾ കുറവാണ് അതുപോലെത്തന്നെ മത്സരിക്കാൻ ആളുകളും കുറവാണ് എന്നാൽ നഗരത്തിലെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഒത്തിരിെയധികം കുട്ടികൾ തമ്മിലുള്ള ഒരു വലിയ ഒരു മത്സരവൃത്തിയോടെയാണ് വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾ വളർന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉന്നതമായ വിജയം നേടാൻ നഗരത്തിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് സാധിക്കുന്നുണ്ട് കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ നഗരത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെത്തന്നെ കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അതുപോലെത്തന്നെ കൂടുതൽ ലോകവുമായിട്ടുള്ള പരിചയം നഗരത്തിലെ കുട്ടികൾക്ക് വരേണ്ടതാണ് പക്ഷെ ഇന്നത്തെ സാങ്കേതിക സൗകര്യങ്ങൾകൊണ്ട് അല്ലെങ്കിൽ ആശയവിനിമയ സാങ്കേതിക സൗകര്യങ്ങൾ വലിയ വളരെ വലുതായതോടുകൂടി എല്ലാവരും ഒരു മുറിയിൽ ചുരുങ്ങിക്കൂടുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഒരു മുറിയിലിരുന്ന് പഠിപ്പിക്കും ഒരു മുറിയിലിരുന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്